സ്ത്രീകളുടെ ശാക്തീകരണത്തിനും ഉന്നമനത്തിനും വേണ്ടി വലപ്പാട് പ്രവർത്തിക്കുന്ന സാന്ദ്രാസ് വിമൺ എംപവർമെൻ്റ് ആൻഡ് എഡ്യുക്കേഷണൽ ട്രസ്റ്റ് ഉണ്ട് അതു കൂടാതെ ലൈഫ് ഗാർഡ് ചാരിറ്റബിൾ സൊസൈറ്റി ആ സൊസൈറ്റി വഴി അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി രക്തദാനം അതുപോലെ നടക്കാൻ കഴിയാത്ത രോഗികൾക്ക് വീൽ ചെയറ് കിടപ്പിലായ രോഗികൾക്ക് വാട്ടർ ബെഡ് അതുപോലെ ആംബുലൻസ് സർവീസ് ഫ്രീ ആയിട്ടുള്ള സൗജന്യമായിട്ടുള്ള ആംബുലൻസ് സർവീസ് ഇതൊക്കെ ലൈഫ് ഗാർഡ് ചാരിറ്റബിൾ സൊസൈറ്റി നൽകുന്നുണ്ട് പിന്നെ തൃശ്ശൂരുള്ള പാലന ട്രസ്റ്റ് വിദ്യാർഥികൾക്ക് നിർധനരായ വിദ്യാർഥികൾക്ക് എഡ്യുക്കേഷണൽ വിദ്യാഭ്യാസ പരമായ സഹകരണം സപോർട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ നിർധനരായ ഈ വിദ്യാർഥികൾക്ക് വസ്ത്രം ഭക്ഷണം പുസ്തകം ഇതെല്ലാം നൽകുന്നുണ്ട്